ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു തൊഴിലില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല സാധ്യമല്ല അത് അപ്പം വിദ്യാഭ്യാസത്തിലൂടെ എല്ലാവർക്കും പണ്ട് കാലങ്ങളിൽ വിദ്യാഭ്യാസം ഇല്ലാത്തോണ്ട് അവർ എല്ലാം തുന്നലും ഈ ആശാരിപ്പണി പമ്പിങ്ങ് കോഴി വളർത്തലും മത്സ്യ കൃഷി അങ്ങനെ ആയിട്ടുള്ള കൃഷി പണികൾ ജോലികൾ ചെയ്ത് ചെയ്താണ് അന്നത്തെ കാലങ്ങളിലെ മനുഷ്യൻമാർ ജീവിച്ചത് ഇന്നും ആയപ്പോഴാണ് കൂടുതൽ വിദ്യാഭ്യാസത്തിലേക്ക് കടന്ന് വരുന്ന എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലെ ഒരു തൊഴിൽ ഒരു നമുക്ക് കിട്ടുക ഉള്ളൂ അങ്ങനെയൊക്കെ വന്നത് അപ്പം

കോഴി വളർത്തലും അങ്ങനെ നടത്തുന്നവർ ഒരുപാട് പേർ ഉണ്ട് അത് അവർ സ് അവരുടെ ജീവിതമാർഗ്ഗം ആയിട്ടവർ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു തൊഴിലാണത് അതിൽ വിദ്യാഭ്യാസം അത് പഠിപ്പിച്ച് കൊടുക്കുന്ന

സ്കോപ്പുകളും ഇന്ന് ഉണ്ട് തയ്യൽ പഠിക്കാം കാർ ഡ്രൈവിംഗ് പഠിക്കാം അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ഉള്ള സംവിധാനങ്ങൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഉണ്ട് ഇത് വിദ്യാഭ്യാസം കോള സ്കൂളുകളിൽ ആണെങ്കിൽ തന്നെ ഒരു ഏതെങ്കിലും ആഴ്ചയിലോ ഒന്നോ രണ്ടോ പീരീഡുകൾ ഇങ്ങനെ ആർട്ട് ഡാൻസിങ് പിന്നെ ഇങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ എന്നാ പറയാ തുന്നൽ പെയിൻ്റിങ് ഇങ്ങനെ ഉള്ളോരോ കാര്യങ്ങൾ കോള് സ്കൂളിലൊരവറ് വെച്ച് നടത്തി തുടങ്ങി വരുന്നുണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത് വിദ്യാഭ്യാസമായിട്ട് ചെയ്യുന്നത് തന്നെ ഒറ്റക്കൊറ്റക്ക് ഓരോ സംരംഭം തുടങ്ങി അത് പഠിപ്പിച്ച് കൊടുക്കാന് അങ്ങനുള്ള ഒരുപാട് നിരവധി ആളുകൾ എപ്പോഴും ഉണ്ട്